വർഷങ്ങൾ മുന്നോട്ടുപോയത് വഴി എനിക്ക് ബൈക്കിങ്ങിനോടുള്ളത് ബൈക്കിങ് ഇങ്ങനെയുള്ള താല്പര്യം കൂടാനുള്ള കാരണം ഒന്നാമത്തേതെന്നു പറഞ്ഞാൽ സാധാ വണ്ടികളെ വെച്ചു നമ്മൾ കമ്പേർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് ബൈക്കിങ്ങോ ബൈക്കിങ്ങുകൊണ്ട് യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ നമ്മളേതു വഴിയിൽക്കൂടെ വേണമെങ്കിലും നമുക്ക് പോവുകയും നമുക്ക് ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്തെത്താനും പറ്റും എന്നാൽ വേറൊരു നാലുചക്ര വാഹനങ്ങളിൽ പോവുകയാണെങ്കിൽ നമുക്ക് വഴിയുടെ പരിമിതിമൂലവും അല്ലെങ്കിൽ അങ്ങോട്ടെത്തിച്ചേരാൻ പറ്റാത്ത പല പല സാഹചര്യങ്ങൾക്കൊണ്ട് നമുക്ക് യാത്ര പൂർത്തിയാക്കാൻ പറ്റാത്ത സാഹചര്യം വരും എന്നാൽ ബൈക്കായിട്ട് പോവുകയാണെങ്കിൽ അതിപ്പം മോശം വഴിയിൽക്കൂടി ആണെങ്കിൽക്കൂടി നമുക്കത് തരണം ചെയ്തു മുന്നോട്ട് പോകാമ്പറ്റും മാത്രമല്ല ബൈക്കിൽ പോവുകയാണെങ്കില് നമുക്ക് സാധാരണ ഒരു ജീപ്പിലോ കാറിലോ ബസ്സിലോ പോകുന്ന ഫീലല്ല നമുക്ക് ബൈക്കിൽപ്പോവുമ്പം കിട്ടുന്നതുകാരണം നമുക്ക് നമ്മൾ പോകുന്ന വഴികളെല്ലാം ഓർത്തിരിക്കാൻ ആ വഴികളിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനും പറ്റും കാരണം ബൈക്കിൽ ബൈക്കിലൂടെ പോകുമ്പം നമ്മുടെ നമുക്ക് ക്ലോസ്ഡോ അടച്ചു കെട്ടിയല്ല നമ്മൾ പോവുന്നത് ഫുള്ള് തുറന്നാണ് ഇരിക്കുന്നത് നമ്മുടെ ചുറ്റുപാടും എന്നാൽ കാറല്ല ജീപ്പാണെങ്കിൽ നമ്മുടെ ചുറ്റും അടുത്ത് അടഞ്ഞ ഒരു ഇതാണുള്ളത് ഫ്രണ്ടിലേ ഗ്ലാസ്സ് ഭിത്തിയിലൂടെ മാത്രം നമ്മൾ ഫോർവേഡ് ലക്ഷ്യം നോക്കി ഇത് യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്നാൽ ബൈക്കിലൂടെ നമുക്ക് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാ റോഡുകളിൽക്കൂടി പോകും മാത്രമല്ല നമുക്ക് എല്ലാ കാഴ്ച്ചകൾ കാണാനും എല്ലാം അനുഭവിക്കാനും പറ്റുകയും അതോടൊപ്പം തന്നെ ഓരോ നമ്മൾ പോവുന്ന സ്ഥലത്തെ കാലാവസ്ഥ അല്ലെങ്കിൽ പ്രകൃതിയോടിണങ്ങി പോകാനൊന്ന് പറ്റും കാരണം കാറുകളിൽ പോവുന്നൊരാൾ എ സിയിട്ടാരിക്കും കൂടുതലും യാത്ര ചെയ്യാറപ്പം നമുക്ക് ചെല്ലുന്ന സ്ഥലത്തല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യ സ്ഥലത്തെ കാലാവസ്ഥയോട് പെട്ടന്ന് നമുക്ക് അഡാപ്റ്റ് അല്ലെങ്കിലത് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റണമെന്നില്ല എങ്കിൽ ബൈക്കാണെങ്കിൽ നമ്മളൊരു യാത്ര തുടങ്ങുന്നയിടം തൊട്ട് അവസാനിക്കുമ്പം വരെ നമ്മളോരോ കാലാവസ്ഥയിലൂടെ പതുക്കെ പതുക്കെ മാറി മാറി മാറിയാണത് നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് അപ്പം നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ നമുക്ക് അവിടുത്തെ കാലാവസ്ഥയുമായിട്ട് പെട്ടെന്ന് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റും മാത്രമല്ല ബൈക്കിലൂടെയാണെങ്കിൽ നമുക്ക് വണ്ടി സാധാ വണ്ടികളെ വെച്ചു നോക്കുമ്പോൾ ചിലവുകൾ കുറവാണ് യാത്രക്കിടയിലുണ്ടാകുന്ന എന്തെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും പണികളോ എന്തെങ്കിലും വരുമ്പം ബൈക്കാണെങ്കിൽ പെട്ടന്ന് ചിലവു കുറച്ച് നമുക്കൊന്ന് ഒന്ന് പരിഹരിച്ച് മൂന്നോട്ടു പോവാൻ ബൈക്കാണെങ്കിൽ പറ്റും മാത്രമല്ല ഇപ്പം എന്തെങ്കിലും ട്രാഫിക്ക് അല്ലെങ്കിൽ ബ്ലോക്കിൽപ്പെട്ടാലും ബൈക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ വഴികളില്ക്കൂടി അല്ലെങ്കിൽ ഇടുങ്ങിയ വേറെ ഷോട്ട് റൂട്ടിലൂടെ നമുക്ക് ബൈക്കാണെങ്കിൽ പോകാമ്പറ്റും പക്ഷേ കാറാണെങ്കിൽ നമുക്ക് മെയിൻ റോഡിൽക്കൂടി മാത്രമേ ഓടിക്കാൻ പറ്റുകയുള്ളു ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതില് അതൊക്കെയാണ് എന്നെ ബൈക്കിങ്ങിലോട്ട് പ്രചോദിപ്പിച്ചത് മാത്രമല്ല ഈ ബൈക്കിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഏതു നിരത്തുകളിലൂടെയും നമുക്ക് കൊണ്ടോടിക്കാമ്പറ്റും കല്ലാണെങ്കിലും പാറയാണെങ്കിലും റോഡാണെങ്കിലും ചളിയാണെങ്കിലും നമുക്ക് ബൈക്കാണെങ്കിൽ നമക്കതുവഴി എല്ലാം തരണം ചെയ്തു പോകാനുള്ള ഒരു ഒരൂ ഗുണമുണ്ട് ഒരു എന്താ പറയുക ബൈക്കാണെങ്കിൽ നമുക്ക് അതിനെയൊക്കെ തരണം ചെയ്തു പോവാമ്പറ്റും പക്ഷേ കാറാണെങ്കിൽ നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള വഴികളൊക്കെ പോകാൻ അപ്പം നമുക്ക് എന്തുകൊണ്ടും എൻ്റെയൊരു അഭിപ്രായത്തിൽ ബൈക്കുമായിട്ടൊരു യാത്ര പോവുന്നതാണ് തീരെ എളുപ്പം മറ്റേത് സാധാ വേറെ വണ്ടികളൊക്കെ വെച്ചു നമ്മൾ താരതമ്യപ്പെടുത്തുമ്പം അതുപോലെതന്നെ ബൈക്കാണെങ്കിൽ നമ്മുടെ ചിലവ് കുറച്ച് നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്താനുമ്പറ്റും ഡീസല് അല്ലെ പെട്രോളിൻ്റെ ചിലവൊക്കെ നമുക്ക് താരതമ്യേന ബൈക്കിനു കുറവാണ് മാത്രമല്ല നമുക്ക് കംഫോട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാനും ബൈക്കിലിരുന്നാണെങ്കിൽ നമുക്ക് പറ്റും ഇതൊക്കെക്കൊണ്ടാണ് എനിക്ക് ബൈക്കിനോടുള്ള താല്പര്യം കൂടിയത്